നമുക്ക് ഈ ജോത്സ്യത്തിലും അങ്ങനത്തെ കാര്യത്തിലൊന്നും നമ്മൾക്ക് വലിയ വിശ്വാസം ഒന്നും ഇല്ല കാരണം ചില ജോത്സ്യന്മാർ ഇങ്ങനെ പറയും എന്താണ് പത്തിൽ പത്ത് പൊരുത്തം പത്തിൽ എട്ട് പൊരുത്തം പിന്നെ ഓരോരോ കല്ല്യാണം വരുമ്പം അവിടെ ശുക്രനാണ് ഇവിടെ ചൊവ്വയാണ് പിന്നെ അങ്ങനെ കല്ല്യാണം കഴിക്കാൻ പറ്റില്ല ആ ദിവസം കല്ല്യാണം കഴിക്കാൻ പറ്റില്ല ഇന്ന മുഹൂർത്തം അങ്ങനെ ഇങ്ങനെയാണ് എന്നൊക്ക പറയും പക്ഷേ ഈ പത്തിൽ പത്തും പത്ത് പത്തിൽ എട്ടും ജോഡി നോക്കിയവരൊന്നും ഈ എറ്റ്ലീസ്റ്റ് നമ്മള് ഇൽ കല്ല്യാണം കഴിക്കുന്നവർ അവർക്ക് ഇപ്പം സുഖമായിട്ട് ജീവിക്കുന്നുണ്ടോ ഒന്നും അറിയത്തില്ല പിന്നെ ഇതൊന്നും ഇല്ലാതെയും കുറേ പേര് ജീവിക്കുന്നു സന്തോഷമായിട്ട് ജീവിക്കുന്നത് നോക്കി ഇരുന്നിട്ട് അത്ര എട്ടും പൊരുത്തമൊക്ക നോക്കിയിട്ടും വലിയ കാര്യമൊന്നും ഇല്ല പിന്നെ എക്സൈറ്റ്ലി ഞാൻ ഒരു ക്രിസ്ത്യനാണ് അത്കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വസിച്ചിട്ടൊന്നും ഇല്ല ഞാൻ ഇങ്ങനെ വിശ്വസിക്കാറും ഇല്ല ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊന്നും പിന്നെ ഇതൊക്കെ ഹിന്ദുക്കളാണ് നോക്കുന്നത് പത്തിൽ പത്ത് പൊര്ത്തെക്കെ ഇതിനൊന്നും വല്യ കാര്യം ഒന്നും ഇല്ല വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം ഇല്ലാത്തവർ ഇങ്ങനെ പോവുന്നു